ഹലോ സർ ടെലിക്കോൺ സർവീസ് സെൻറര് അല്ലേ എൻ്റെ മറ്റേ ത്രീ ജിയുടെ ഫോർ ജിയിലേക്ക് ആക്കാനായിരുന്നു സിം സിം വോഡാഫോൺ ആയിരുന്നു

ആ അതെ അതിന് എന്തൊക്കെ ഡാറ്റയാണ് ഈ ഇതാക്കുന്നതിന് വേണ്ടത് ത്രീ ജിയില് നിന്ന് ഫോർ ആക്കാന് ഫോർമാലിറ്റീസ് ആധാർ കാർഡിന്റെയോ കോപ്പിയായാലും മതിയോ ഫോട്ടോയോ ആ ഓക്കെ ഓക്കെ പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആ ഓക്കെ ഓക്കെ പിന്നെ എത്രയാണ്

ജിയോ അല്ലെ റേഞ്ച് ഏത് എയർടെല്ലോ പിന്നേ ആ ഓക്കെ ഈ പ്ലാനിനൊക്കെ ഇപ്പോള് റേറ്റ് കൂടുന്നതിനുള്ള കാരണം ഇപ്പോള് സിമ്മിനെല്ലാം റേറ്റ് കൂടുന്നില്ലേ ഡാറ്റയ്ക്ക് ഉള്ളതല്ലേ